ഇഷ്ടപ്പെട്ട ശൈലി അല്ലെങ്കിൽ സംഗീത ഇനം എന്നുപറഞ്ഞാൽ എനിക്ക് കൂടുതലിഷ്ട്ടം മെലഡീസാണ് മെലഡീസ് അതിലെ വാക്കുകള് അതിൻ്റെ അർഥങ്ങള് അതൊക്കെ നമ്മുടെ മനസിന് കുളിർമയും ഒരു ഉന്മേഷമൊക്കെ തരുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാല് ശ്രുതി മധുരമാണ് മെലഡീസ് മനസ്സില് ടെൻഷൻ കുറയ്ക്കും ഏത് പ്രായക്കാർക്കും എത്ര ടെൻഷൻ ഉള്ളവർക്കും എത്ര നേരം വേണമെങ്കിലും ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്നതാണ് മെലഡീസ് അതിൻ്റെ സംഗീതം ആയാലും ഒര് അടിച്ചുപൊളി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊന്നും ഇല്ല കണ്ണടച്ചിരുന്ന് നല്ലരീതിയില് ആസ്വദിക്കാൻ പറ്റിയതാണ് മെലഡീസ് അതേത് ഭാഷയിലുള്ളതായാലും നമുക്ക് അർഥം അറിയണമെന്ന് ഒന്നുമില്ല അർഥം അറിഞ്ഞില്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റിയതാണ് സംഗീതം ആ സംഗീതത്തില് മെലഡീസ് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയതാണ് നമ്മുടെ മനസ്സില് എത്ര ദുഃഖം ഉണ്ടെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ മെലഡിസൊക്കെ കേട്ടാല് നമ്മുടെ മൂടെ മാറിപോവും നമ്മുടെ സമയം പോകുന്നതൊന്നും അറിയില്ല എത്രനേരം വേണമെങ്കിലും നമ്മള് പാട്ടിൽ തന്നെ ഇൻവോൾവ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക്